വിനോദസഞ്ചാരികള് ധാരാളമായും ഞങ്ങളുടെ നാട്ടില് പത്തനംതിട്ടയിൽ എത്താറുണ്ട് അതില് മനോഹരമായ പല സ്ഥലങ്ങളുമുണ്ട് പച്ചപ്പ് നിറഞ്ഞ പുഴകളൊഴുകുന്ന അങ്ങനെ നല്ല പ്രകൃതിരമണീയമായ നല്ല നല്ല സ്ഥലങ്ങൾ ഏറെയുള്ള നാടാണ് പത്തനംതിട്ട അതിലേറ്റവും നല്ലതെന്ന് പറയുമ്പോള് എല്ലാം നല്ല സ്ഥലങ്ങണ് അത് അതില് വിനോദസഞ്ചാരികള് ഏറ്റവും കൂടുതൽ വരുന്നത് ഗവിയിലാണ് ഗവി ഡാമുണ്ട് അതുപോലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് നല്ല മഞ്ഞ് കൂടുതലായിട്ടുള്ള സ്ഥലമാണ് ഗവിയിലേക്ക് വണ്ടി വഴി പോവുകയാണെങ്കില് ട്രാന്സ്പ്പോട്ട് സൗകര്യം ലഭ്യമാണ് ജീപ്പ് സൗകര്യം ലഭ്യമാണ് അല്ലാതെ ആയാലും വീടുകളില് നിന്ന് കാറ് സ്കൂട്ടറ് അങ്ങനെ എല്ലാ വണ്ടി വാഹനങ്ങളിലും പോകാവുന്നതാണ് ഗവി കുറച്ച് എത്തി കഴിയുമ്പോള് പക്ഷേ ബസ്സുകളിൽ മാത്രമാണ് ഉള്ളിലോട്ട് ആയത്കൊണ്ട് അനുവധിക്കപ്പെടുന്നത് ട്രാന്സ്പ്പോട്ട് ബസ്സുകള് അത് ധാരാളമായും ലഭ്യമാണ് അതുപോലെ തന്നെ പമ്പയാർ ഒഴുകുന്ന നദി ഏറെയുണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അതെല്ലാം അതുപോലെ തന്നെ കുട്ടവഞ്ചി സവാരി അത് ധാരാളമായും വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലമാണ് കുട്ടവഞ്ചി സവാരി കോന്നിയിലേത് അതേപോലെ തന്നെ ആനക്കൂട് കോന്നിയിൽ ആനക്കൂട് ധാരാളമായി ആന ആനകള് ആനക്കുട്ടികള് അങ്ങനെ ആനയൂട്ട് അങ്ങനെ ധാരാളമായി ആനേമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ആന സവാരി അങ്ങനെ ധാരാളമായും ഉള്ള ഒന്നാണ് ആനക്കൂട് അതേപോലെ തന്നെ വിനോദസഞ്ചാരികള് സ്ത്രീകളൊഴികെ അറുവത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും ഒരു പത്ത് വയസ്സിനകത്തുള്ള കുട്ടികള് സ്ത്രീകളില് അങ്ങനെയാണ് ശബരിമലയിൽ എത്തേണ്ടത് പുരുഷന്മാര്ക്ക് എല്ലാ വയസ്സുള്ളവര്ക്കും ശബരിമലയില് കയറാവുന്നതാണ് അത് വളരെ നല്ല ഒരു ഐതീഹ്യം ഉറങ്ങുന്ന സ്ഥലമാണ് ശബരിമല ദൈവസാന്നിധ്യം കൂടുതലുള്ള ഇടമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കാറുള്ള ഒരു നാടാണ് കേരളത്തില് നിന്ന് ഇന്ത്യയില് നിന്ന് ദൂരെ ദേശത്ത് നിന്ന് അങ്ങനെ പല വിനോദ സഞ്ചാരികളും എത്തുന്ന ഒരിടമാണ് ശബരിമല പമ്പയാറും വളരെ പ്രസിദ്ധമായ ഒരിടമാണ് പമ്പയില് മുങ്ങി കുളിച്ച് ഇരുമുടിക്കെട്ട് ഏന്തി ശബരിമല പതിനെട്ടാം പടി കയറുന്നത് വളരെ ഒരു നല്ല ഒരു കാഴ്ച്ചയാണ് അതേപോലെ പതിനെട്ടാം പടി കയറി സന്നിധാന ത്തെത്തി തിരക്കുമൊക്കെ കൊണ്ട് ദര്ശനം കിട്ടാവുന്നത് തന്നെ ഭയങ്കരം ഒരു ഭാഗ്യമാണ് അങ്ങനെ എല്ലാം കൊണ്ടും പല പല സ്ഥലങ്ങൾ കൊണ്ടും പച്ചപ്പ് കൊണ്ടും പുഴകള് നദികള് അങ്ങനെ എല്ലാം കൊണ്ടും വളരേ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട